കോഴിക്കോട് ജില്ലയില് തന്നെ ഇന്നൊരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് സമ്പത്ത് വ്യവസ്ഥയിലായിക്കോട്ടേ അവിടെയുള്ള ഓരോ കാര്യങ്ങ ഓരോ സൗകര്യങ്ങളിലും അടിസ്ഥാനപരമായ ഓരോ ഓരോ കാര്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് ആ ആദ്യത്തതിനേക്കാളും കൂടുതല് മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ജില്ലയില് ഓരോ ഓരോ ഇന്ഡസ്ട്രീസാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും ഐ ടി മേഖലകളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഇപ്പോള് കോഴിക്കോടില് തന്നെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് ആള്ക്കാർ പഠിക്കാന് പോകുകയും ഇപ്പോൾ ഐ ടി മേഖലയിലായിക്കോട്ടെ അതുപോലെ സി എക്ക് ആക്കുകയായിക്കോട്ടെ അങ്ങനെ ഒരുപാടൊരുപാട് സ്ഥാപനങ്ങള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് തന്നെ ഉയര്ന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും പോയി പഠിക്കുകയും ഒരുപാട് മാറ്റങ്ങള് അവിടെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെത്തന്നെ ഹോസ്പിറ്റലുകളിലാണെങ്കിലും മറ്റൊള്ളവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് മെച്ചപ്പെട്ട രീതിയില് തന്നെ ഇപ്പം ഐ ടി ഇന്ഡസ്ട്രീസൊക്കെ ഒരുപാട് വളര്ന്നു കഴിഞ്ഞു ഇപ്പോൾ സോഷ്യല് മീഡിയ അതുപോലുള്ള ഓരോ മേഖലകളിലും ഒരുപാട് ആള്ക്കാർ ഉള്ളതുകൊണ്ട് തന്നെ അവര്ക്ക് അതുപോലെ പഠനരീതിയിലും ഇപ്പോൾ ആദ്യം ഒന്നും ഒരുപാട് ആള്ക്കാർ പഠനത്തില് ഏര്പ്പെട്ടിരുന്നില്ല എന്നാല് ഇന്ന് എല്ലാവരും നല്ല ഇപ്പോൾ ഡിഗ്രിയും അല്ലേ അതുപോലെ പ്ലസ് ഒക്കെ കഴിഞ്ഞ് ഐ ടി മേഖലയില് ഒരു ഒരു വര്ഷമോ അല്ലെങ്കില് അതില് കൂടുതലോ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ ഐ ടി മേഖലയൊക്കെ വളര്ച്ചയുണ്ടായത് കാരണം തന്നെ സമ്പത്ത് വ്യവസ്ഥയില് ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഇപ്പം അവിടെ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തില് തന്നെ അത് വളരെയധികം സ്വധിനിച്ചിട്ടുണ്ട് ഇപ്പം വസ്ത്രങ്ങളില് ആയിക്കോട്ടെ അവരുടെ ജീവിത ശൈലിയിലായിക്കോട്ടേ ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ കോഴിക്കോട് ജില്ലയില് തന്നെ ഇപ്പോൾ വലിയൊരു മേഖലയാണ് നാളികേരത്തിന്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഏതൊരു രാജ്യ ഏതൊരു ജില്ലയിലേക്കും നാളികേരം കൂടുതല് കൊണ്ടുപോകുന്നത് കോഴിക്കോട് ജില്ലയില് നിന്ന് തന്നെയാണ് കൂടുതല് നാളികേര ഉത്പാദനം നടക്കുന്നത് തന്നെ ആ ഒരു ജില്ലയിലായതു കൊണ്ടുതന്നെ അതുപോലെ പ്യുവര് ആയിട്ടുള്ള എണ്ണയും വെളിച്ചെണ്ണ പോലെയുള്ള എണ്ണക എണ്ണയും അതുപോലെ നാളികേരവുമൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് മറ്റുള്ള ജില്ലകളിലേക്ക് കയറ്റുമ കൊണ്ടുപോകുകയും വാങ്ങുകയും വില്പന ചെയ്യിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ലയില്